നമ്മുടെ നാട്ടില് സാധാരണ ചെറിയ ചെറിയ പ്രാണികൾ ഒക്കെ കുത്തുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിക്ക് നീറാറുണ്ട് നല്ല വേദനയുണ്ടാവാറുണ്ട് എല്ലാ പ്രാണികളും കുത്തുമ്പോൾ നമുക്ക് വേദനിക്കാറില്ല പക്ഷെ ചില പ്രാണികൾ കുത്തുമ്പോൾ തേനിച്ചപോലുള്ള തേനീച്ച കടന്തൽ ചെറിയ ചെറിയ വണ്ടുകളൊക്കെ കുത്തുന്ന സമയത് നമുക്ക് നല്ല പോലെ വേദനിക്കാറുണ്ട് പൊതുവെ നമ്മുടെ നാട്ടില് ഇങ്ങനെ എന്തെങ്കിലും കുത്തിയിട്ടുണ്ടെങ്കിൽ അധികം ഹോസ്പിറ്റലിൽ ഒന്നും പോകാറില്ല നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആദ്യത്തെ ചെറിയ കുഞ്ഞുകുഞ്ഞ് വൈദ്യങ്ങള് ഒക്കെ ഉപയോഗിക്കാറുണ്ട് നമ്മള് നമ്മള് തേനീച്ച കുത്തിക്കഴിഞ്ഞാല് ആദ്യം നമ്മൾ അവിടെ എന്ത് ചെയ്യും ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഉരച്ച് കൊടുക്കാറുണ്ട് എവിടെയാണോ കുത്തിയത് ആ ഭാഗത്തേക്ക് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഉരച്ചു കൊടുക്കും അപ്പോൾ ആ സമയത്ത് അതിൻ്റെ മുള്ളോ അല്ലെങ്കിൽ അതിൻ്റെ എന്തേലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഉപ്പ് തേച്ച് കഴിഞ്ഞാൽ അത് പോകുമെന്നാണ് പറയുക അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് പൊടിയുപ്പ് അല്ലെങ്കിൽ കല്ലുപ്പ് അതുപോലെ നന്നായി അതിനെ മേലിൽ ഒരച്ച് കൊടുക്കും പിന്നെ നമ്മള് ചെയ്യാറ് എന്താ എന്ന് വെച്ചാല് വെള്ളം ഉപ്പ് ഇട്ട് കഴുകിയ ശേഷം നമ്മള് അതിലേക്ക് എന്തെങ്കിലും എണ്ണയോ എന്തേലും ഇട്ട് തടവി കൊടുക്കാറുണ്ട് പിന്നെ നമ്മള് ചെയ്യാറുള്ളത് എന്താ എന്ന് വെച്ചാല് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാറുണ്ട് ആ മുറിവില് അല്ലെങ്കിൽ ആ കുത്തിയ ഇടം എവിടെയാന്ന് വെച്ചാൽ അവിടെ മഞ്ഞപ്പൊടികളൊക്കെ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് സെറ്റായിട്ട് വരാറുണ്ട് അല്ലെങ്കിൽ പേസ്റ്റ് തേക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ ടൂത്ത് പേസ്റ്റ് ഒക്കെ എടുത്ത് തേച്ച് കഴിഞ്ഞാല് അവിടെ എന്തെയും ആ ഒരു വീക്കോക്കെ പോയിക്കിട്ടും